അങ്ങനെ കരയിച്ചൊരു പുസ്തകം വായിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാലത് ഈ അടുത്ത കാലത്തൊന്നും അങ്ങനൊരെണ്ണം വായിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും അങ്ങനത്തൊരു പുസ്തകം ഓർമ്മ വരുന്നില്ല ആടുജീവിതം അങ്ങനെയൊരു പുസ്തകമായിരുന്നു അത് അത് അല്ലാതെ പിന്നെ ഇപ്പം അങ്ങനെ ഓർമ്മ വരുന്നില്ല ഇപ്പം എനിക്കങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്ന വ ഇഷ്ടമാണ് പക്ഷേ വായിക്കാൻ സമയവത്രേം കിട്ടാത്തോണ്ട് ഈ അടുത്ത കാലത്തൊന്നും വായിക്കാൻ പറ്റീട്ടില്ല പിന്നെ അങ്ങനെ കരയിച്ച ഒരു സി സിനിമകളുണ്ട് സിനിമ അങ്ങനെ കണ്ടിട്ടുണ്ട് കരയിച്ച സിനിമകൾ അങ്ങനെ ഒരു സിനിമയാണ് ആകാശദൂത് ആകാശദൂത് കണ്ട് കരയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവൂന്ന് തോന്നുന്നില്ല അതുപോലെയാണ് അതിനകത്തും ഇതുപോലെ നല്ല സന്തോഷകരമായിട്ട് പോയിക്കോണ്ടിരുന്ന ഒരു ഫാമിലി ഒരു കുടുംബം അച്ഛനും അമ്മയും നാല് മക്കളും അച്ഛൻ ആദ്യമേ ആക്സിഡൻറ്റ് അങ്ങനെന്തോ മരിക്കുന്നു പിന്നമ്മ അമ്മയും മക്കളും മാത്രവാകുന്നു അമ്മ മക്കളെ നല്ല രീതിക്കൊക്കെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് അമ്മക്കിതുപോലെ ബ്ലഡ് കാൻസറാകുന്നത് അത് തിരിച്ചറിയുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന ഏറ്റോം വലിയ സങ്കടമെന്ന് പറഞ്ഞ് മക്കളെ എങ്ങനെ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു ആ അമ്മേടെ സങ്കടം അങ്ങനെ അമ്മ മക്കളെ ഓരോരുത്തർ ഓരോരുത്തടുത്ത് സേയ്ഫാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പിന്നെ അങ്ങനെ ആദ്യത്തെ ആളിനെ ഒരു ഓ ഒരു ഫാമിലിയെ ഏൽപ്പിക്കുന്നു വളർത്താനായിട്ട് അത് ഒത്തിരി നാളായി ഇതും കണ്ടിട്ട് അതുകൊണ്ട് കുറച്ചു ഓർക്കുന്നുള്ളിപ്പോൾ അതാദ്യത്തെ ആളിനെ അങ്ങനേൽപ്പിക്കുന്നു പിന്നെ എനിക്ക് തോന്നുന്നു കൊടുക്കുന്നത് ഇളയ കുഞ്ഞിനെയാണ് ഒരു കൊച്ചു മോനാ അതിനെ ഇതുപോലെ അടുത്തൊരു കുട്ടികളില്ലാത്ത ഒരു ഫാമിലി ആ കുഞ്ഞിനെ ദത്തെടുക്കുന്നു പിന്നുള്ളത് രണ്ട് ട്വിൻസ്സ് ട്വിൻസാണ് പിന്നുള്ളത് അതിൽ ഒരാൾക്ക് കാൽന് സുഖവില്ലാത്താളും ഒരാൾക്ക് പ്രശ്നവൊന്നുവില്ല അപ്പോൾ ആ പ്രശ്നവൊന്നുമില്ലാത്ത ആളിനെ ഒരു ഫാമിലി ഇതുപോലെ ദത്തെടുക്കും അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഈ അമ്മയും ഈ കാൽന് പ്രശ്നമുള്ള മകനും മാത്രവാകും അപ്പം ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അന്നേരം ആരും തയ്യാറാവുന്നില്ല അതിൽ അമ്മയ്ക്കും ഭയങ്കര സങ്കടം അപ്പം അതുപോലെ എന്തോ ഒരു വീട്ടിലെന്തോ ഒരു അപ്പം അമ്മയ്ക്കുവിതുപോലെ മരിക്കാറായീന്നുള്ളൊരു ഇത് വരുമ്പം എല്ലാരുങ്കൂടൊരുമിച്ചാഘോഷിക്കണം എന്നുള്ള ഇതിൽ എന്തോ എന്തോ ഒരു ഫങ്ഷനോ ഈ മക്കൾ ദത്തെടുത്തോണ്ട് പോയ മക്കളെ അവരുടെ വീട്ടുകാരെ എല്ലാങ്കൂടെ അവിടേക്ക് ക്ഷണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ വന്ന് എല്ലാവരും വന്ന് കഴിഞ്ഞ് ആ സമയമാണെന്ന് തോന്നുന്നു അപ്പം ഇളയ ഈ ഒരു ഒരാൾ മാത്രം അമ്മേടെ കൂടെ അപ്പോഴുമുണ്ടല്ലോ ആ ആളിനെ മാത്രവാരും കൊണ്ടു പോയിട്ടില്ല പിന്നെ ഈ അമ്മ മരിക്കുമ്പോഴാന്തോന്നുന്നു എല്ലാവരും ഓരോരുത്തരുടെ കൂടെ ഓരോത്തരുടെ ദത്തെടുത്ത ആ ഫാമിലീടെക്കൂടെ പോവും ലാസ്റ്റ് ഒരാൾ മാത്രമാവുമ്പം ഈ ആ കാല് വയ്യാത്ത കുട്ടീടെ കൂടൊള്ള ട്വിൻ ബ്രദറ് അതിനെ ദത്തെടുത്ത വീട്ടുകാർ തന്നെ ഈ കുട്ടിയേങ്കൂടെ കൊണ്ടോവാൻ തയ്യാറാവുന്ന അങ്ങനൊരു കഥയാണത് അത് നമുക്ക് കണ്ടിരിക്കുന്ന ഏതൊരാൾക്കും വളരെ വളരെ വിഷമം ആ ഒരു സിറ്റുവേഷൻസ്സ് കാണുമ്പം തോന്നാറുണ്ട് ആ ലാസ്റ്റിലാ ഒരാൾ മാത്രം ഒരു പെ ഒരു മോൻ മാത്രം ആരും കൊണ്ടു പോവാനില്ലാതെ നിൽക്കുന്ന അവസ്ഥയും അച്ഛനും അമ്മയും നഷ്ടപ്പെടുമ്പോഴുള്ള വേദനേം അങ്ങനെ എല്ലാമായിട്ട് നമുക്ക് വളരെ വളരെ നമ്മളെ കരയിപ്പിച്ച ഒരു സിനിമയാണത് പുസ്തകങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ച് വായിക്കാൻ പറ്റീട്ടില്ല